മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എട്ട് ആറ് രണ്ടായിരത്തി ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്